ഹലോ ന്യൂ ഹോട്ടൽ അല്ലേ ഞാൻ അരമണിക്കൂറിന് മുമ്പെ ഫുഡ്ഡ് ഇടപാട് ചെയ്തിരുന്നു അപ്പോൾ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും പൊറാട്ടയും ബീഫുമായിരുന്നു ഇതുവരെയും വന്നില്ല അരമണിക്കൂറായി കൊടുത്തിട്ട് ഇത് വരെ വന്നില്ല പിന്നെ അതിന്റെ കൂടെ ഒരു ഫാമിലി ഐസ്ക്രീം കൂടി വെച്ചേര് അത് എനിക്ക് അഞ്ചാറ് ഗെസ്റ്റുകളുണ്ട് അരമണിക്കൂറിനകം കൊണ്ടുവരണം അല്ലെങ്കിൽ എനിക്ക് അഞ്ചാറ് ഗെസ്റ്റുകളുണ്ട് എന്റെ വീട്ടിൽ ആ അത് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഇടപാട് ചെയ്യണോ വേറെ ഹോട്ടലിൽ ഇടപാട് ചെയ്യണോ അത് എന്തുവാന്ന് വെച്ചാൽ വിളിച്ച് പറയണം അതിന് എന്തെങ്കിലും പെട്ടെന്ന് വേണം അത് ഗസ്റ്റുകളെല്ലാം ഇവിടെ കുത്തിയിരിക്കുകയാണ് അത് ഐസ്ക്രീമുംകൂടെ വെച്ചേക്കണം ഫാമിലി ഐസ്ക്രീം വെച്ചേക്കണം പൈസ വരുമ്പം ഞങ്ങൾ ഐസ്ക്രീമിന്റെ പൈസ കൊടുത്ത് വിടാം ശരി ആ